മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകള് എനിക്കിഷ്ടല്ല അതുകൊണ്ട് ഞാനത് ആസ്വദിക്കാറുല്ല അല്ലാതെ നല്ല കലാകാരന്മാര് മതപരമായി അല്ലാതെ എഴുതിയ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട് പക്ഷെ ഒരു പ്രത്യേക മതത്തിനു വേണ്ടി ഹിന്ദു മതത്തിനു വേണ്ടി എഴുതിയ പാട്ടുകള് ക്രിസ്ത്യൻ മതത്തിനു വേണ്ടി എഴുതിയ പാട്ടുകള് അവര് ദൈവത്തിനെ കുറിച്ച് എഴുതിയ പാട്ടുകള് അല്ലാണ്ട് മുസ്ലിം ദൈവത്തിനെ പറ്റി എഴുതിയ പാട്ടുകള് ഹിന്ദു ദൈവത്തിന് എഴുതി പറ്റിയ പാട്ടുകൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാട്ടും ആസ്വദിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്തരം പാട്ടുകള് എനിക്ക് ഇഷ്ടല്ല